ആ ഗുഡ് മോണിങ് മാം ആ പറഞ്ഞുകൊള്ളൂ

ആ ചെയ്യുന്നുണ്ട് മാം ആ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ലെസ്സൺ പ്ലാനോക്കെ ചെയ്യുന്നുണ്ട് ആ നമ്മുടെ ഒരു വൺ വീക്ക് വെച്ചിട്ടാണ് ലെസ്സൺ പ്ലാൻ ചെയ്യുന്നത് വൺ വീക്കിലവരെ എത്രത്തോളം പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അതിന്റെ അകത്ത് അവർ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് മ് ആ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് എന്നാലും ഈ വീക്കിലൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല മാം

ആ കോക്കരിക്കുലറായിട്ടുള്ള ആക്റ്റിവിറ്റീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമെല്ലാം അവർ ചെയ്യുന്നുണ്ട് മാം ആ ചെയ്യാം മാം എല്ലാം അവർ ചെയ്യുന്നതെല്ലാം ഞാൻ പറയുകയും ചെയ്യാം ആ അതെ അതെ നമ്മൾ പറഞ്ഞ രീതിയിൽത്തന്നെയാണ് ലെസ്സൺ പ്ലാനൊക്കെ ചെയ്യുന്നത് അതിൽത്തന്നെ കോക്കരിക്കുലറിൻ്റെ ആക്റ്റിവിറ്റീസുമെല്ലാം അതിലുൾപ്പെടുത്തുന്നുണ്ട്

അ കേൾക്കുന്നുണ്ടോ മാം

സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല മാം കാരണം നമ്മുടെ ടീച്ചേഴ്സെല്ലാം നല്ല രീതിയിൽത്തന്നെ എല്ലാം പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് പ്രത്യേകം കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടൊന്നുമില്ല മാം ആ സ്റ്റാഫ് മീറ്റിങ്ങ് വരുമ്പോൾ ആ സ്റ്റാഫ് മീറ്റിങ്ങ് വരുമ്പോളവർ അതിനെപ്പറ്റി ചോദിച്ചാൽ മാം ഒരു മീറ്റിങ്ങ് വെച്ചിട്ട് അതിൽ നമ്മളെന്തൊക്കെ ചെയ്യാനാഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അതിലുൾപ്പെടുത്തി അവർക്ക് ബോധ്യമാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് മാഡം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ആക്റ്റിവിറ്റീസ് രീതിയിലും അല്ലാതെയുള്ള പല തരത്തിലും അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് തന്നെയാണവർ ലെസ്സൺ പ്ലാനായിട്ട് എഴുതുകയും ചെയ്യുന്നത് മാമൊന്ന് ചെക്ക് ചെയ്താൽ നമുക്കത് അറിയാനായിട്ട് പറ്റും ഉം ഉം ഉം അതെ ആ ആ ലെസ്സൺ പ്ലാൻ ലെസ്സൺ പ്ലാനെന്ന് പറയുമ്പോൾ ഒരു വീക്കിലെ കാര്യങ്ങളായിട്ടാണല്ലോ മാം ചെയ്യുന്നത് ഇയർ പ്ലാനല്ലല്ലോ

ആ ആ ആ ഓക്കെ മാം താങ്ക് യു മ് മ്